രാവിലെ മുതൽ ജോലിക്ക് ഒമ്പതു മണിക്ക് ശേഷം സാമൂഹ്യ സേവനത്തിനായിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് നാലുമണി നാലരയോട് കൂടിയാണ് ചില സമയങ്ങളിൽ രാത്രിയാവും വീട്ടിലേക്ക് കയറുന്നത് അത്രയും നേരമുള്ള വൈദ്യുതി ഉപയോഗം ഒരു കുടുംബം എന്ന നിലയിൽ കുറവാണ് എന്നാൽ വൈകുന്നേരങ്ങളിൽ ഇപ്പോള് ചൂട് കഴിഞ്ഞ ഒന്നു രണ്ടു മാസങ്ങൾക്ക് മുൻപ് അസഹനീയമായതുകൊണ്ടു തന്നെ വളരെ എ സി എയർ കണ്ടിഷൻ പോലെ ഉള്ള ഉപകരണങ്ങൾ വീടുകളിൽ റൂമുകളിൽ ഉപയോഗിക്കുകയും അന്ന് ആ സമയത്ത് വൈദ്യുതി നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു പിന്നെ ഫോൺ ചാർജ് ചെയ്യുന്നത് അതുപോലെതന്നെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് ടി വി കാണുന്നത് ഫ്രിഡ്ജ് വാഷിങ് മെഷീൻ ഇവ ഇവ ഇവയൊക്കെ നല്ല രീതിയിലുള്ള ഉപയോഗങ്ങള് വീടുകളിൽ ഉണ്ടാകുന്നുണ്ട് വ്യത്യസ്ത കാലാവസ്ഥകളെന്ന് പറയു ഈ സമയത്ത് അവ ചൂട് ഈ സമയത്ത് വൈദ്യുതി ഉപയോഗം വളരെ കുറവാണ് കാരണം നല്ല മഴ പെയ്തു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഫാൻ പോലും ഇടാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പാണ് നമ്മളേ ബാധിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സമയത്ത് വളരെ സൂക്ഷ്മതയോടു കൂടിയാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ഞാൻ ആദ്യം ഓർമിപ്പിച്ചത് പോലെ രണ്ടു മൂന്ന് മാസങ്ങൾക്കു മുൻപ് തന്നെ നല്ല രീതിയിൽ വൈദ്യുതി ഉപയോഗിക്കേണ്ടി വന്നു അതുപോലെ മാസം നല്ല രീതിയിൽ തന്നെ വൈദ്യുതി ബില്ല് നല്ല രീതിയിൽ വരികയും ചെയ്തു അതുപോലെതന്നെ ചില സമയങ്ങളിൽ ചില മാസങ്ങളിലൊക്കെ വൈദ്യുതി മീറ്ററിന് കംപ്ലെയിന്റുകൾ വരികയും അതുപോലെതന്നെ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജുകൾക്കും വാഷിംഗ് മെഷീനുകൾക്കൊക്കെ കംപ്ലയിന്റ് വരികയും അതുപോലെതന്നെ കംപ്ലൈന്റ്റ് വരികയും നല്ല രീതിയിലാ കംപ്ലയിന്റ് കാരണം നല്ല രീതിയിൽ ബില്ലുകൾ വരികയും ചെയ്തു അപ്പോള് അതുകൊണ്ടുതന്നെ അങ്ങനെ ബില്ലുകൾ വന്നതുകൊണ്ടുതന്നെ ഒരുപാടൊരുപാട് ബുദ്ധിമുട്ടുകൾ പൈസ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാവുകയും അത് നല്ല രീതിയിൽ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാൽ ഈ സമയത്ത് ഈ ഒരു തണുപ്പുള്ള മഴയുള്ള സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് വൈദ്യുതി ബില്ലുകൾ ഒരുപാട് ഒഴിവാക്കാനും അതുപോലെതന്നെ ഉഷ്ണങ്ങൾ കുറഞ്ഞ് കുറവായതിനാൽ തന്നെ തുണികൾ കഴുകുന്നതിന്റെ ഉപയോഗങ്ങൾ കൂടുതൽ കുറവായിട്ടുണ്ട് അതുപോലെതന്നെ ഹീറ്റർ ഉപയോഗിക്കുന്നതിന്റെ ഉപയോഗിക്കുന്നതിന്റെ അത് കുറവായിട്ടുണ്ട് അപ്പോള് അത് അതുകൊണ്ടുതന്നെ ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് വൈദ്യുതി ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ ചൂട് കയറുമ്പോൾ വൈദ്യുതി നല്ല രീതിയിൽ തന്നെ എല്ലാ മുറികളിലും ഫാനും അതുപോലെതന്നെ എയർ കണ്ടീഷനും വൈകിട്ടായിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു